ഹലോ സാറേ എന്നോർമ്മയുണ്ടോ ബീനേണ് സാറിൻറ്റടുത്ത് ഞാനൊരു കാര്യം അന്നൊരിക്കൽ പറഞ്ഞിരുന്നല്ലോ എനിക്കൊരു യൂകെ ക്ക് പോകാനൊരവസരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാസ്പോർട്ട് സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സാറിൻ്റെ കൂടെ അത് ശരിയാക്കി തരാമെന്നു പറഞ്ഞു അപ്പോൾ ഒന്നും ആയിട്ടില്ല അപ്പോൾ പിന്നെ ഈ കോഴ്സിനെക്കുറിച്ച് സാറൊന്നു വിശദമായിട്ടൊന്നു പറഞ്ഞു തരികയും വേണം എനിക്ക് വല്ല അറിവൊന്നും ഇതിനെ പറ്റിയിട്ടില്ല അന്ന് സാർ പറഞ്ഞതു കൊണ്ടാണ് ഞനിതിന് പോകാനുള്ളതൊക്കെയൊന്നു മനസ്സിൽ വന്നത് പിന്നെ എന്തൊക്കെയുണ്ട് സാറേ കുറേ ആയല്ലോ അന്ന് ക്ലാസ് കഴിഞ്ഞു പോന്നിട്ട് പിന്നെ സാറിനെ കണ്ടിട്ടൊന്നുമില്ല ഇപ്പങ്ങനെ ഒരു ഇത് വന്നത് കൊണ്ടാണിപ്പം സാറിനെ വിളിക്കണതും പറയണതും പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ ഭാര്യക്കും കുട്ടികൾക്കൊക്കെ സുഖമാണോ പിന്നെ അപ്പോൾ സാറീ പാസ്സ്പോർട്ടിൻ്റെ കാര്യം ഒന്നു ശരിക്കൊന്നു ശ്രദ്ധിക്കണം കാര്യം സാറിന് പറ്റിയിട്ടില്ലെങ്കിൽ സാറിനെ അറിയണവരാരൊക്കെയുണ്ടെങ്കിലും ശരിയാക്കിത്തരണം എനിക്കിങ്ങനൊരു പോകാനുള്ളൊരവസരം സാറായിട്ട് റെഡിയാക്കി തരുമോ കേട്ടോ